വയനാട് ജില്ലയിലെ ചില ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകള് എന്ന് പറയുന്നത് അല്ലെങ്കില് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നേച്ച് എന്താണ് നേച്ചർ ആയിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ കുറുമ്പാല കോട്ട പിന്നെ മീൻമുട്ടി വെള്ളചാട്ടം പിന്നെ എന്താണ് പിന്നെ കുറുവ ദ്വീപ് അങ്ങനെ ഒരുപാട് എന്താണ് സ്ഥലം ഉണ്ട് ഇവിടെ ഒക്കെ എന്താണ് ക്ലൈമറ്റിനനുസരിച്ചുള്ള തൊറ മീൻസ് മഴക്കാലങ്ങളിൽ ഒക്കെ എന്താണ് ഇങ്ങനത്തെ സ്ഥലങ്ങള് കൂടുതലായിട്ട് അടച്ചിടാറാണ് ഉള്ളത് അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്താണ് വിനോദ സഞ്ചാരികൾക്കു വേണ്ടിയിട്ട് തുറന്ന് തുറന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകും മീൻസ് എൻട്രി ഫീസ് ഉണ്ടാകും എല്ലാവർക്കും വേറെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഒന്നും എന്താണ് ഈ സ്ഥലങ്ങള് സന്ദർശിക്കുന്നതിനു വേണ്ടിട്ട് വിനോദ സഞ്ചാരികൾക്കായി കൊടുക്കാറില്ല